മലയാളഭാഷയുടെ ചരിത്രമെന്ന് പറയുമ്പഴത്തേക്കും മലയാള ഭാഷയ്ക്ക് വളരെ അധികം പഴയകാലം മുതൽ തന്നെ വലിയ ഒരു ചരിത്രമുള്ള ഒരു ഭാഷയാണ് മലയാള ഭാഷ എന്നാൽ ഇന്ന് ആ ഭാഷയ്ക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല മറ്റ് ഭാഷകളും സംസ്കാരവും അതിന് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഇപ്പം ഇംഗ്ലീഷ് ഭാഷകളുടെ കടന്ന് വരവ് എന്ന് പറയുമ്പഴത്തേക്കും ഇംഗ്ലീഷ് ഭാഷ കടന്ന് വന്നത് മുഖേനെ മലയാള ഭാഷയ്ക്ക് കിട്ടേണ്ട ആ ഒരു

നമ്മൾ നമ്മുടെ മലയാള ഭാഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാൽ അങ്ങനെ കൊടുക്കാതെ കേരളത്തിൽ തന്നെ മലയാള ഭാഷ സംസാരിക്കുന്നവരേക്കാൾ കൂടുതൽ മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരാണ്